ഇത് വെറൈറ്റി അല്ലേ ആ ഞാൻ സൂര്യ ഏജൻസിയിൽ നിന്നാണ് കഴിഞ്ഞ ആഴ്ച തന്നെ ഒരു വീട്ടിലേക്ക് വീട്ട് പണി ചെയ്യാൻ വേണ്ടി വിട്ടിരുന്നില്ലേ ആ അവിടെനിന്ന് ഭയങ്കര കംപ്ലയിൻറ്റ് ആണല്ലോ തന്നെ കുറിച്ച് വരുന്നത് മര്യാദയ്ക്ക് പണി ചെയ്യുന്നില്ല പിള്ളേരെ നോക്കുന്നില്ല എന്ത് പറഞ്ഞിട്ട് ഉണ്ടെങ്കിലും തറുതല പറഞ്ഞുകൊണ്ട് ഇരിക്കുക സീരിയൽ കാണണമെന്ന് നിർബന്ധം അങ്ങനെ എന്തോരം കംപ്ലയിന്റാണ് നിങ്ങളെ കുറിച്ച് വരുന്നത് പക്ഷെ എനിക്ക് അവിടെനിന്ന് കിട്ടുന്നത് എപ്പോഴത്തെ അങ്ങനെ അല്ല അവര് തന്നെ പറ്റി ഭയങ്കര മോശം ആയിട്ടാണ് പറയുന്നത് ഞാൻ എന്താ അവരുടെ അടുത്ത് പറയുക പണി ചെയ്യുന്നില്ല വീട്ടിൽ ഒരു പണി പറഞ്ഞിട്ട് ഉണ്ടെങ്കിൽ ചിലപ്പോൾ താൻ തർക്കിച്ച് നിൽക്കും സീരിയൽ കണ്ട് കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ഓരോ കംപ്ലയിൻറ്റ്സാണ് പിന്നെ എന്താണ് അവർ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നത് എനിക്ക് അവർ പറയുന്നത് അല്ലേ പറ്റുള്ളൂ താൻ വന്ന് വേറെ അവരെ പറ്റി ഒരു കംപ്ലയിൻറ്റ് എൻ്റെ അടുത്ത് തന്നിട്ടില്ല അപ്പോൾ പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ തനിക്ക് അവിടെ വേറെ വല്ല മോശം അനുഭവം സംഭവിച്ചിട്ടുണ്ടോ അപ്പോൾ താൻ എന്താ അത് മുൻ ഇതിന് മുമ്പ് പറഞ്ഞിട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് വീട് മാറ്റി എങ്കിലും തരാമായിരുന്നു തനിക്ക് ഇത്ര ബുദ്ധിമുട്ട് ഉണ്ടാവില്ലായിരുന്നല്ലോ ഇപ്പോ കസ്റ്റമർ കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂ എടുത്ത് നോക്കുമ്പോൾ തന്നെ പറ്റി അവർ മോശം അഭിപ്രായം കേൾക്കുന്നത് അപ്പം ഞങ്ങൾ ഇനി അടുത്ത ആൾടെ വീട്ടിലേക്ക് തന്നെ എങ്ങനെ പറഞ്ഞുവിടും പക്ഷെ ഒരു സ്ത്രീ എന്ന നിലയിൽ തൻ്റെ അടുത്ത് ഇങ്ങനെ മോശം ആയിട്ട് പെരുമാറുന്ന ആളുടെ അടുത്ത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഏജൻസി എന്തായാലും നിർത്തില്ല അപ്പോൾ ഞങ്ങൾ വേറെ വഴി നോക്കിയേനേരുന്നു ആ ഓക്കെ ഈ ഇത് അല്ലാണ്ട് ഒരു വട്ടം അല്ലാണ്ട് വേറെ വല്ല പല പല വട്ടം അയാൾ ഇങ്ങനെ ശ്രമിച്ചിട്ടുണ്ടോ ഉപദ്രവിക്കാൻ ആ അപ്പോൾ വീട്ടിൽ പറഞ്ഞോ അവരുടെ വീട്ടിൽ പറഞ്ഞായിരുന്നോ മ് ഞാൻ അവരോട് ഒന്ന് സംസാരിച്ച് നോക്കട്ടെ കേട്ടോ ഇത് അവിടെ ആ വീട്ടിൽ വേറെ ആളുകൾക്ക് അറിയുമോ ഇതിനെ കുറിച്ച് സത്യാവസ്ഥ വല്ലവർക്കും അറിയുമോ അവിടെ ക്യാമറ അങ്ങനെ വല്ലതും എന്തെങ്കിലും ഉണ്ടോ മ് ഞാൻ ഒന്ന് സംസാരിച്ച് നോക്കട്ടെ അവരുടെ അടുത്ത്